ഞാൻ സ്വിഗ്ഗിയിൽ ഒരു ഓർഡർ കൊടുത്തിരുന്നു ഓർഡർ കൊടുത്തിട്ട് അയാൾ എന്നോട് വേറൊരു രീതിയിലാണ് അപമര്യാദയായിട്ടാണ് എന്നോട് പെരുമാറിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് കൃത്യസമയത്തിന് സാധനം കൊണ്ട് തരികയും ചെയ്തില്ല എന്നിട്ട് ആൾ എൻ്റെ അടുത്ത് ചൂടാവുകയും ചെയ്തു ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രെയും വൈകിയത് എന്ന് ചോദിച്ചതിൻ്റെ പുറത്ത് അയാൾ എൻ്റെ അടുത്ത് ക തട്ടിക്കയറി അങ്ങനെ ബ്ലോക്ക് ആണ് അതാണ് ഇതാണ് എനിക്ക് സമയത്തിന് എത്തിച്ചേരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അയാൾ എൻ്റെ അടുത്ത് തട്ടിക്കയറി അത് ഞാൻ ഞാനത് അയാളോട് ചോദിച്ചതിന് പറയുവാണ് നമ്മൾ കുട്ടികൾ വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ആ സമയം തെറ്റി വരുമ്പോൾ നമ്മൾ ചോ എന്നാ ഒരു കസ്റ്റമർ എന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും പക്ഷേ അയാളുടെ പെരുമാറ്റം എനിക്ക് ഒട്ടും അസഹ സഹിക്കാൻ പറ്റാവുന്നതിനെക്കാളും കൂടുതലായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഡെലിവറി ബോയ് വ്യക്തിയെ മര്യാദ ഇല്ലാത്തവനാണെന്ന് പറഞ്ഞു അതേത് ഏത് വില്പനക്കാരനായാലും ഡെലിവറി കമ്പനി ആയാലും ഡെലിവറി കമ്പനിയിലേക്ക് ആ ഡെലിവറി ബോയിനെ കൊണ്ട് പരാതിപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു